ഗുഡ് മോർണിങ് സാർ ഞാൻ ചങ്ങനാശ്ശേരീന്നാണ് വിളിക്കുന്നത് എൻ്റെ പേര് റെനിയെന്നാണ് എനിക്കൊരു ബോട്ടി നിങ്ങൾക്ക് ബോട്ടിങ്ങ് സർവീസുകൾ അവൈലബിൾ അല്ലേ

സൺഡേ ഉ ഞായറാഴ്ച ഉണ്ട് അല്ലേ അപ്പം അടുത്ത ഞായറാഴ്ച ഞങ്ങൾക്കൊന്ന് വരണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അതിൻ്റെ ഓക്കെ എത്ര മണിവരെ സാറെ രാവിലെയായിട്ടാണ് വരണത് ഞങ്ങൾ അഞ്ച് പേര് കാണും ഓ ആ അതിന് എത്രയാകും സാറേ വ്യൂസൊക്കെ ഉള്ളത് ഓക്കെ എന്നാൽ പിന്നെ അതുതന്നെ ബുക്ക് ചെയ്തോളു ഞായറാഴ്ചത്തേക്കാണ് ഫുഡൊക്കെ അതിനകത്തല്ലാതെ ഇരുപത്തൊന്നാം തീയതി സാറെ നെക്സ്റ്റ് ഞായർ ആ ഈ മാസം ഇരുപത്തൊന്നാം തീയതി ജൂലൈ ഇരുപത്തൊന്നിന് അപ്പം ഇരുപതിനായിരം രൂപ അല്ലേ ഓക്കെ പിന്നെ ബാക്കി ഫുഡ് ഉച്ച പിന്നെ ഞങ്ങൾ ഫുടൊന്നും കരുതണ്ടല്ലോ ഓക്കെ സാറെ ഞങ്ങൾ അഞ്ച് പേരിൽ പിള്ളേരൊക്കെയുണ്ട് അപ്പം അവർക്ക് എൻറ്റർടൈൻമെൻറ്റ്സ് എന്തെങ്കിലുമൊക്കെ കാണുമോ

ആ സാറെ അപ്പം കൊച്ചുപിള്ളേരൊക്കെ ഉണ്ടല്ലോ ഇത് ബോട്ടിൽ ഞാൻ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത് പുന്നമടക്കയാൽ എന്തോ ഞാൻ കേട്ടിട്ട് എന്തോ വലിയ കായലാന്നൊക്കെ അതിനെകുറിച്ച് പുന്നമട കായലിനെ കുറിച്ച് സാറൊന്ന് പറയാമോ അതിനെകുറിച്ച് എനിക്ക് അറിയില്ല

ആണോ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ഓക്കെ അതാണ് ഓക്കെ അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത ഓ ഓ ഓ ഇതെല്ലാം ഈ ടു ട്വൻറ്റി തൗസൻഡിൽ ഇൻക്ലൂഡാണോ ഓക്കെ ഓക്കെ അതിൽ ഇറങ്ങി നടക്കാനുള്ള സൗകര്യം ഒക്കെ ഉണ്ടോ ഓക്കെ ഓക്കെ ഓക്കെ നല്ലകാര്യം ആ

ഓക്കെ അപ്പോൾ ചെറിയ പിള്ളേർക്കൊക്കെ അതിലേക്കൂടെ പൂവാൻ സേഫാണോ കുഴപ്പമൊന്നൂല്ല

ഓക്കെ മാഡം എന്ന ഞാനൊരിത്തിരി തിരക്കിലാണ് അപ്പോൾ അടുത്ത ഞായറാഴ്ചത്തേക്ക് നമുക്ക് പോകാവുന്നതാണ് ഞാൻ പേയ്മെൻറ്റായിട്ട് ഒരു കുറച്ച് ഗൂഗിൾ പേ നിങ്ങൾക്ക് ഇപ്പോൾ തരാം ഫൈവ് തൗസൻഡ് തന്നാൽ പോരെ ശരി മാഡം താങ്ക് യൂ